ഇപ്പം ഞാൻ പോയിട്ടുള്ള തിരുനെല്ലി പക്ഷിപാതാളത്തിലാണ് ഞങ്ങള് എന്താ പറയുക ഒരു അത്യാവശ്യയൊരു മഴ കുറഞ്ഞ ഒരു സമയത്താണ് പോയത് എങ്കിൽപ്പോലും ഒരുപാട് നടക്കാൻ ഉണ്ടായിരുന്നു ഞങ്ങള് സ്കൂളിന് ഞങ്ങൾ എന്താ പറയുക ഒരു ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയതാണ് ഒരുപാട് അട്ട കടിച്ച് എന്ത് പറയാൻ മടുത്ത് അതിന്റെ ഒരു ടോപ്പില് എത്താൻ ഒന്നും പറ്റിയിട്ടേയില്ല നമ്മള് അങ്ങനെ മടുത്തെന് കാലൊക്കെ വേദന എടുത്തിട്ട് അമ്മാതിരി ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വെള്ളം കുടിച്ചിട്ടും ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടാണ് പോയെ എന്നാലും കൂറെ അങ്ങോട്ട് ഇങ്ങോട്ട് കയറുന്നു ഒരു പകുതി എത്തിയപ്പോ ഭയങ്കര ഉത്സാഹമായിരുന്നു കയറാൻ ഒക്കെ പിന്നെ കുറച്ച് എത്തിയപ്പോഴുത്തെക്ക് എല്ലാവരും ബാക്കോട്ടേക്കു വരാൻ തുടങ്ങി അതുപോലെ മടുത്തു അത്യാവശ്യം വെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെയിലുണ്ട് എന്നെ കൊള്ളാവുന്ന വെയില് ഉള്ള പക്ഷേ ഭയങ്കര മടുപ്പ് ആയിരുന്നു ക്ഷീണമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അങ്ങ് എത്തിയത് എങ്ങനാന്ന് പോലും അറിയില്ല പകുതി വരെ ഇറങ്ങിട്ട് എല്ലാരും തിരിച്ചു ഇറങ്ങാണ് ചെയ്യുന്നെ കുറെ പേരൊക്കെ അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങള് മറ്റേ എന്താ പറയുക അതിലൊരു നാല് ഒരു ട്രക്കിംഗ് അങ്ങനെയൊരു സ്പോട്ട് ഉണ്ട് ഒരു ഹട്ട് ഒക്കെ ഉള്ളതുണ്ട് അവിടെവരെ എത്തി അതിനും മേലെക്ക് ഇനിയും പോകാനാണ് ഞങ്ങള് പോയിട്ടുണ്ടായില്ല അപ്പം നമ്മള് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര കാലുവേദന ആയിരുന്നു ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് പോലും പോണുണ്ടായിരുന്നില്ല